മലയാളം എന്നു പറയുന്നത് ഒരു ബുദ്ധിമുട്ടായ ഒരു ഭാഷയാണ് എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് മാത്രമായിട്ട് അതിലെ സംസ്കൃതവും തമിഴും കൂടി കലർന്നതാണ് മലയാള ഭാഷ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വ്യക്തിത്വമായ ഒരു ഭാഷ തന്നെയാണ് മലയാളം ഇപ്പോൾ റേഡിയോ അല്ലെങ്കിൽ കാലഘട്ടം മാറി വരുന്നതിന് റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലേക്ക് ഈ ഭാഷകൾ വന്നിരുന്നു ക്കുമ്പോൾ മലയാള ഭാഷയാണ് വളരെ നൈപുണ്യമായിട്ടാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് മലയാളം എന്നു പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അച്ചടി സംസ്കരണ ഭാഷയാണ് അപ്പം റേഡിയോ ആദ്യം റേഡിയോയിൽ നിന്ന് എന്താണ് ദൂരദർശൻ പോലത്തെ റേഡിയോ മാധ്യമങ്ങളിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം പിന്നെ അത് സ്ക്രീൻ സ്ക്രീൻ പ്രസൻസ് ആയിട്ട് ടെലിവിഷൻ മാധ്യമങ്ങളിലേക്ക് മലയാള ഭാഷയുടെ ആ പ്രാധാന്യത്തേയും ആ നൈപുണ്യത്തേയും ഇവർ ഓരോ വർഷം രൂപേണ ആ ഭാഷയയുടെ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ മലയാള ഭാഷയുടെ ആ ഒരു എന്താണ് ആ ഒരു പണ്ടത്തെ ആ ഒരു മഹിമയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് വീണ്ടു കിട്ടുന്നില്ല